ആരോഗ്യം നിലനിർത്താൻ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അത് ഏതൊരു ഏജ് ഈ സാധാരണ നമ്മള് ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് മോണിങ്ങിൽ നമ്മൾ എഴുന്നേല്ക്കുന്നതാണ് നമ്മള് മിനിമം ഒരഞ്ചു മണിയാവുമ്പഴേലും എഴുന്നേല്ക്കണം അതാണ് ഏറ്റവും പറയാനുള്ളത് ആദ്യം പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ തീർച്ചയായിട്ടും വ്യായാമം അത് ചെറുപ്പക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മള് ഓട്ടവും ചാട്ടവും ജിംനേഷ്യവും ചെറിയ എക്സസൈസും ഒക്കെയായിട്ട് മുന്നോട്ടുപോകാം ഏജ് എബവ് ഫിഫ്റ്റി ഒക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വാക്കിങ് പിന്നെ അനുബന്ധ എക്സസൈസുകള് ഗ്രൗണ്ട് ലെവലിലുള്ള എക്സസൈസുകള് അത് തീർച്ചയായിട്ടും നട ആയി പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ തീർച്ചയായിട്ടും ആരോഗ്യം നിലനിർത്തുന്നത് ഏറ്റവും ഒരു നൈൻറ്റി ഫൈവ് പെർസെൻറ്റേജെന്ന് പറയുന്നത് നമ്മള് രാവിലെ എഴുന്നേല്ക്കുക എഴുന്നേറ്റ് കഴിയുമ്പോള് ഇത് മാത്രമല്ല രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ട് ഒരു ഉണർവുണ്ടാവുകയും നമ്മള് ആ ഒരു ചെറിയ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും അതിനോട് അനുബന്ധിച്ച് നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും പണികൾ ചെയ്യാന് പറ്റും അത് നമ്മുടെ പണികൾ തീരുകയും ചെയ്യും നമുക്കൊരെക്സർസൈസും ആവും അപ്പോള് തീർച്ചയായിട്ടും അഞ്ച് മണി അഞ്ച് മണിക്ക് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് ഞാന് വരുന്നു നമ്മള് അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അഞ്ച് മണിക്ക് തീർച്ചയായിട്ടും ഒരു നമുക്ക് ഓഫീസിലെ ഡ്യൂട്ടിക്ക് എവിടേലും പോകണമെന്നുണ്ടെങ്കില് നമ്മള് ഒരു എട്ടു മണിയാവുമ്പോള് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും അതിനോടനുബന്ധിച്ച് നമ്മള് വീട്ടിലെ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ കൃഷിപ്പണിയോ എന്തേലും കിളക്കുകയോ ഒക്കെ ചെയ്യാണെങ്കില് നമ്മള്ക്ക് തീർച്ചയായിട്ടും അതൊരു വേറൊരു തൊഴിലാളിക്ക് കൊടുക്കേണ്ട പൈസ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം നമ്മുടെ ആരോഗ്യരക്ഷ പെടുകയും ചെയ്യും അതിനെയാണ് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് രാവിലെ എഴുന്നേല്ക്കുക കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോള് നമുക്ക് മക്കളുണ്ടെങ്കില് തീർച്ചയായിട്ടും അവരും ഇത് കണ്ടാണു പഠിക്കുന്നത് നമ്മുടെ എൻറ്റപ്പൻ ചെയ്ത കണ്ടല്ലേ അവനും വളരുന്നെ തീർച്ചയായിട്ടും ആ പയ്യൻ്റെ ആ പയ്യൻ്റെ മൈൻറ്റിൽ നമ്മളൊരു നല്ല രീതിയിലൊരു എക്സൈസിൻ്റെ ഫോർമുല കുത്തിവയ്ക്കുകയാണ് അവനും ഫ്യൂച്ചറിൽ അവനൊരു വളർന്ന് അവനൊരു യുവാവാവുമ്പോള് അവനും തോന്നും എൻ്റപ്പൻ ചെയ്തേയ്ത് അതുപോലെ ഞാനും ഇതുപോലെ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യും വീട്ടിലെ പണി ചെയ്യും ഒരുമാതിരിപ്പെട്ട പണികളെല്ലാം തന്നെ അവൻ ചെയ്യുകയും ചെയ്യും ഇതിനാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മുടെ അപ്പോള് ബോഡിയെല്ലാം ഇത് ബാധിക്കുന്നെ നമ്മുടെ ബോഡി നോർമലാവും നമുക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ തീർച്ചയായിട്ടും ഉണ്ടാവത്തുമില്ല നമുക്ക് ആ അണപ്പോ ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളോ ഉണ്ടാകത്തുമില്ല നമുക്ക് എന്തേ എപ്പോഴും നമ്മുടെ ബോഡിയൊക്കെ എപ്പോഴും സ്ലിമ്മുമായിരിക്കും കറക്റ്റ് നമുക്ക് ആരോഗ്യം ഉറക്കവും എല്ലാം കിട്ടും അതിനാൽ നമ്മള് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം രാവിലെ എഴുന്നേല്ക്കുക എന്നുള്ളതാണ് അപ്പോള് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോള് തന്നെ നമുക്ക് ഓരോന്ന് ചെയ്യാന് തോന്നിക്കോളും നമുക്കത് ശീലമാക്കേണ്ട കാര്യം രാവിലെ എഴുന്നേല്ക്കുക എന്നുള്ളതാണ് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നീ ഓടുകയോ അല്ലെങ്കില് എന്തേലും എക്സസൈസ് ചെയ്യുകയോ ചെയ്യുമ്പോള് തീർച്ചയായിട്ടും നമുക്കൊരു മാനസിക ഉല്ലാസം അത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞാല് മാത്രമേ നമുക്ക് അറിയാന് പറ്റുകയുള്ളൂ അതിനാൽ നമ്മള് രാവിലെ എഴുന്നേല്ക്കുക എക്സസൈസ് ചെയ്യുക ഓക്കെ